കിൻഡിൽ എന്ന കിൻഡിലിൻ്റെ ഉപയോഗം വളരെ ശരിക്കും പറഞ്ഞാല് ഈ വന്ന കാലത്ത് ഇപ്പോഴത്തെ ന്യൂജെന്നിനു വളരെ പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണ് കിൻഡില് വേറൊന്നുമല്ല ഇന്നത്തെക്കാലത്തെ കുട്ടികള് പുസ്തകം വായനയ്ക്ക് വലിയ താല്പര്യം കാണിക്കാത്ത ഒരു ജനറേഷനാണ് ഇപ്പോള് ഉള്ളത് വ താല്പര്യം കാണിക്കാത്തതെന്നല്ല ഒട്ടുമേ പുസ്തകം വായിക്കാൻ അവർക്ക് താല്പര്യമില്ല ശകലം സമയം കിട്ടിയാല് ന്യൂസ് പേപ്പറോ ഒന്നും നോക്കാതെ അവര് ഫോണില് യൂ ട്യൂബോ വാട്ട്സാപ്പിലോ ഒക്കെ കയറിയും ഇൻസ്റ്റഗ്രാമിലൊക്കെക്കയറി സമയം കളയുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ കുട്ടികളില് അപ്പോള് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ കിൻഡിലെന്ന് പറയുന്നത് അവര് ഫോണ് യൂസ്യ്യുമ്പോള് അ അങ്ങനെയെങ്കിലും കിൻഡിലുപയോഗിച്ചെങ്കിലും വല്ലതുവൊന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ഗുണം കിൻഡലിനെക്കൊണ്ട് കിട്ടുന്നുണ്ട് പിന്നെ പുസ്തകങ്ങള് അല്ല അച്ചടിയിലൂടെ വരുന്ന ഒരു ദോഷമെന്ന് പറയുന്നത് പേപ്പർ ഉണ്ടാക്കാനായിട്ട് നമ്മള്ക്ക് നമ്മളുടെ പ്രകൃതിയിലെ മരങ്ങള് ഒത്തിരി വെട്ടിമാറ്റപ്പെടുന്നുണ്ട് അതുകൊ അതുകൊണ്ടുള്ള നഷ്ടങ്ങള് കിൻഡില് എന്നെ സംബന്ധിച്ചിടത്തോളം കിൻഡിലിനെക്കൊണ്ട് ഒത്തിരി പ്രയോജനം മരങ്ങളുടെ നഷ്ടത്തിലും സം സംഭവിക്കുന്നുണ്ട് ഒത്തിരി മരങ്ങള് വെട്ടാതെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് മഴ ലഭിക്കാനായിട്ടും നമ്മള്ക്കാവശ്യമായ മനുഷ്യർക്കാവശ്യമായ ഓക്സിജൻ ലഭിക്കാനുമൊക്കെ നമുക്ക് പ്രകൃതിയിലും മരങ്ങള് ധാരാളം ആവശ്യമാണ് അപ്പോള് അങ്ങനെ ധാരാളം മരങ്ങള് ആവശ്യമായ ഒരു സാഹചര്യം പ്രത്യേകിച്ച് വായുമലിനീകരണമൊക്ക നടക്കുന്ന ഈയൊരു സന്ദർഭത്തില് മരങ്ങള് വെട്ടിമാറ്റപ്പെടാതെ കിൻഡില് പോലുള്ള ഉപകരണങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം വായിക്കാനുള്ള എല്ലാക്കാര്യങ്ങളും കിൻഡലിനകത്തുണ്ട് അപ്പോള് അ അത്യാവശ്യം വായിക്കേണ്ടവർക്ക് വായിക്കുകയും ചെയ്യാം മാ മരങ്ങള് നഷ്ടപ്പെടത്തൂ ഇല്ലാ പ്രകൃതി മലിനീകരണം തടയുകയും ചെയ്യും നമുക്കാവശ്യമായ എല്ലാ ഓക്സിജനും അങ്ങനെയുള്ള വായുകള്ള് നമുക്ക് കിട്ടുകയും ചെയ്യും പേപ്പറാകുമ്പോള് ഇഷ്ടംപോലെ മരങ്ങള് വെട്ടി നശിപ്പിക്കപ്പെടേണ്ടതായൊരു സാഹചര്യം വരുന്നു ആ പിന്നെ ഇപ്പഴത്തെയൊരു രീതി വെച്ച് നോക്കുവാണെങ്കില് കുട്ടികൾക്ക് പുസ്തകമെടുത്തോ പേപ്പറെടുത്തോ കയ്യിൽപ്പിടിച്ച് വായിക്കാനായിട്ട് അവരാരും താല്പര്യപ്പെടുന്നില്ല പുസ്തകവായന ഒട്ടുമേ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ആരോട് ചോദിച്ചാലും ഹോബിയെന്താണെന്ന് ചോദിച്ചാൽ ആർക്കും വായന ഒരു ഹോബിയായിട്ട് ഇന്നാരും പറയുന്നില്ല അങ്ങനെയൊരു ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ സാഹചര്യങ്ങള് ഇന്നത്തെ ജനറേഷൻ പോകുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് കിൻഡില് എന്ന് പറയുന്ന ഉപകരണം വളരെ പ്രയോജനപ്പെടുന്നതാണ് കാരണം കൊച്ചുകുട്ടികള് മുതല് മുതിർന്നവര് എൺപത് വയസ്സായവര് വരെയും അത്യാവശ്യം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അവര് വെറുതെയിരിക്കുന്ന സമയം മുഴുവൻ അവര് ഫോണാണ് യൂസ്യ്യുന്നത് ഇപ്പോള് ടി വി ടെലിവിഷനൊന്നും അങ്ങനെയാരും അധികം ടെലിവിഷനൊന്നും ഉപയോഗിക്കുന്ന ഒരു കാലാവസ്ഥയല്ല കാ രീതിയല്ല ഇപ്പോള് കൺ കണ്ട് വരുന്നത് എല്ലാവരും ഫോണെടുത്ത് വെച്ച് ഫോണിലെ ഓരോ കാര്യങ്ങള് പ്ലേ സ്റ്റോറും ഗൂഗിളും മറ്റതും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ സേർച്ച്യ്യുകയും അതിലൂടെ അറിയാൻ പറ്റുന്ന കാര്യങ്ങള് മെസ്സേജുകള് ഈവൻ ടെലിവിഷനിലെ ന്യൂസുപോലും കേൾക്കാതെ ഫോണില് ലൈവ് ന്യൂസ് കേള്ക്കുന്ന ആൾക്കാരാണ് അവരവരുടെ ഇഷ്ടപ്രകാരം ഒരോര്ടെയും മുറികളിലിരുന്ന് അവരവരുടെ ഫോണില് വാർത്ത കേൾക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെക്കാലത്ത് കണ്ടു വരുന്നത് അപ്പോള് അങ്ങനെയുള്ള സാഹചര്യത്തില് കിൻഡില് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫോൺ യൂസ്യ്യുന്ന ഫുൾ ടൈം അതായത് ഫുൾ ടൈമെന്നല്ല പിന്നെ വെ വെറുതെയിരിക്കുന്ന സമയങ്ങളില് ഫോൺ കൈകാര്യം ചെയ്യുന്നവര് കിൻഡിലെടുത്തു വെച്ച് വായിക്കുകയാണെങ്കില് അങ്ങനെയെങ്കിലും വായന എന്ന് പറയുന്ന ഒരു ഗുണകരമായൊരു വിനോദം ആ കിൻഡിലിലൂടെയെങ്കിലും പ്രവർത്തിക്കുമല്ലോ അത് അങ്ങനെയെങ്കിലും അങ്ങ് അതങ്ങ് നടന്ന് പോകും അല്ലെങ്കില് വായന എന്ന ശീലം അങ്ങനെ ആളുകൾക്കുണ്ടാകും എന്നുള്ള ഒരു ഗുണം കിൻഡിലുകൊണ്ട് അത് വളരെ വലിയൊരു ഗുണം തന്നെയാണ് മരങ്ങളുടെ നഷ്ടം മരം വെട്ടി നശിപ്പിക്കുകയെന്നൊരു രീതി പിന്നെ നമുക്ക് വലിയ പേപ്പർ അച്ചടിക്കണമെങ്കിൽ പേപ്പറിൻ്റെ ഉപയോഗം പേപ്പർ ഉണ്ടാക്കാനായിട്ട് മരങ്ങള് വേണമല്ലോ അപ്പോള് മരങ്ങളുടെ നശീകരണം കുറച്ച് കുറയും വായു മലിനീകരണം കുറയും മരങ്ങള് വെട്ടാതാവുന്നതോടെ വായു മലിനീകരണം കുറയും പ്രകൃതിയില് മനുഷ്യർക്ക് ആവശ്യമായ ഓക്സിജൻ ധാരാളം കിട്ടും അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങള് ഈ കിൻഡിലുക്കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ കിൻഡില് വളരെയേറെ പ്രയോജനപ്രദമായ ഒരു ഉപകരണം തന്നെ ആയിട്ടാണ് എനിക്ക് മനസിലാക്കാൻ സാധിച്ചത്